ഒരു കാഴ്ച്ചക്കാരൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു കളിക്കാരൻ എന്ന നിലയിലും എനിക്ക് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട കായിക വിനോദ കായിക വിനോദം എന്ന് പറയുന്നത് അത് ഫുട്ബോള് തന്നെയാണ് വൈകുന്നേരം ഒരു പന്തേ ഒരു പത്താം ക്ലാസ് വരെയൊക്കെ വൈകുന്നേരം ഒരു നാല് നാലരയൊക്കെ ആവുന്ന ടൈമ് ഉണ്ടങ്കി ഗ്രൗണ്ടിലേക്ക് ഓടി പായാർന്നു അന്നൊന്നും കളിക്കാരെ കിട്ടീലേരുന്നെങ്കി കളിക്കാരെ എത്തിപ്പെടാൻ പറ്റിലേർന്നെങ്കി വല്ലാത്തൊരു ദേഷ്യവും എന്നോട് തന്നെ എനിക്ക് വല്ലാത്തൊരു ദേഷ്യവും ഒരു മാതിരി എടങ്ങേറൊക്കെ ആയിരുന്നു ഇനി കാഴ്ചക്കാരനാണെങ്കിൽ എനിക്ക് ഏറ്റോം ഇഷ്ട്ടപെട്ട ഫുട്ബോൾ ക്ലബാണ്

അവര് എൻ്റെ എനിക്ക് ഏറ്റവും വേദനകരമായ ഒരു നിമിഷമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലെ യൂസിയൻ ചാംബ്യൻഷിപ്പ് യിലായിരുന്നു അതില് ഫൈനലില് വരെ അതിമനോഹരമായി കളിച്ച ടീമായിരുന്നു ഞങ്ങൾ ലിവർ പൂൾ പക്ഷെ അന്ന് ആയിട്ട് വന്ന ടീമിൻ്റെ കൂടെ മൂന്നേ ഒന്നിന് പരാജയപ്പെട്ടു കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മള് ഫൈനലില് എത്തിയിരുന്നത് കപ്പ് അടുത്തുണ്ടായിരുന്നിട്ടും വിട്ടു പോയപ്പോഴുള്ള സങ്കടം രാജ്യാന്തര ടീമോള് ആണെങ്കില് എനിക്ക് ഏറ്റവും ഇഷ്ട്ടള്ള ടീമ് ബ്രസീലാണ് അവരെ എൻ്റെ രണ്ടായിരത്തി ഞാന് എല്ലാ വേൾഡ് കപ്പൊന്നും കണ്ടിട്ടില്ല എല്ലാ വേൾഡ് കപ്പെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് ജനിച്ച മുതലുള്ള എല്ലാ വേൾഡ് കപ്പും കണ്ട് കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനാലും പതിനെട്ടും ഇരുപത്രണ്ടും മാത്രമേ കണ്ടിട്ടൊള്ളൂ രണ്ടായിരത്തി പത്തില് കുറച്ച് കളിയൊക്കെ കണ്ടെങ്കിലും അങ്ങനെ കാര്യായിട്ട് കണ്ടിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ബ്രസീല് ഏഴ് ഒന്നിന് പരാജയപ്പെട്ടതും ഒരുപാട് വേദനിപ്പിച്ച നിമിഷമായിരുന്നു